ആ അതെ ജോസ് ആണല്ലോ ആ ആ അയ്യോ ഉണ്ടല്ലോ നമ്മുടെയിലുണ്ട് ആ നമുക്ക് ഇവിടെ ഒരു രണ്ട് രൂപ രണ്ടര ഒക്കെ അടുത്ത് എത്ര ബഡ്ജറ്റ് ഉണ്ട് അതിന്റെ അനുസരിച്ച് തരാം നിങ്ങൾക്ക്

പന്ത്രണ്ട് സെൻറ്റ് വേണം അല്ലേ അപ്പോൾ എറെ ഏറെക്കുറെ എത്ര ബഡ്ജറ്റ് എത്ര സെൻറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു അമ്പത് രൂപയുടെ ഒരു ഫ്ലോട്ട് ഒരു നല്ലൊരു വീടുംകൂടെ കിടപ്പുണ്ട് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന ആ വഴി അത്യാവശ്യം നല്ല വഴിയൊക്കെയാണ് അങ്ങനെയൊരു പ്ലോട്ട് കിടപ്പുണ്ട് അത് പറ്റുമോ എന്ന് ഒന്ന് കാണാനായിട്ട് പറ്റുമോ എങ്കിൽ

ആ ഓ ഓക്കെ ഓക്കെ ഞാൻ എന്നാൽ അതിന് ഞാന് അത് അതിൻ്റെ ഞാനൊന്ന് എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ നടത്തുന്ന നല്ല കച്ചവടം നടത്തുന്ന റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടിയുള്ള ഒരു ഫണ്ട് ഉണ്ട് അപ്പം പുള്ളിയോടൊന്ന് ചോദിച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ആ സാറുമായിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനം ഇപ്പം സാർ ഏതായാലും നമുക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കാര്യം എന്ന് വെച്ചാൽ സംഗതി വന്നാൽ ഉടനെ തന്നെ ഞാനത് ആ നമുക്കത് പുതിയ കമ്മീഷനൊന്നും ഇല്ലാതെ നമുക്കത് നടത്താനായിട്ട് പറ്റും ഏ നമുക്ക് അധികം കമ്മിഷനൊന്നും ഇല്ല നമുക്ക് നല്ല

ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഞാൻ എന്നാലും ഒരു രണ്ട് മൂന്ന് സ്ഥലം നോക്കി വെച്ചിട്ടേ ഞാനത്

രണ്ട് മൂന്ന് ഫ്ലോട്ട് എൻ്റെ കയ്യിൽ കസ്റ്റഡിയിൽ കിടപ്പുണ്ട് ഞാനപ്പം അതിൻ്റെ നല്ല നല്ലത് നോക്കി നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് തരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പത് നമുക്കത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കൊടുത്ത് നമുക്കത് ചെയ്ത് തരാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് വേറെ ഇല്ല ഓ സൈഡിലൊക്കെ നല്ല കിടപ്പുണ്ട് സൈഡിലായിട്ട് നല്ല വേണ്ടല്ലേ അപ്പം ആ ഏരിയാ ഒക്കെ നല്ല ഏരിയ ഉണ്ട് ആ ആ ആ

ആ അത് നല്ല കാര്യമാണ് ആ അത് അത് നല്ല കാര്യമാണ് അപ്പം അങ്ങനെ വരുന്നത് നമുക്കത് നോക്കി എടുക്കാനായിട്ട് സാധിക്കും ഞാൻ അത് പാറേപ്പളി സൈഡിലായിട്ട് ഞാൻ പറയുക അതിൻ്റെ ഒരു നല്ലൊരു സുഹൃത്ത് എന്റെ എനിക്ക് തോന്നുന്നത് ഒരു ഫ്ലോട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് അത് ഞാനൊന്ന് വിളിച്ചു ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് ഞാൻ അതിൻ്റെ കൃത്യമായി വിവരം പറയാ കേട്ടോ ഏ വേറെ ആ പാറേപ്പളി സൈഡിലാ ആ പാറേപ്പളി സൈഡിൽ തന്നെ മതിയെന്നാണ് പറയുന്നത് അല്ലേ ആ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ നമ്മൾ അത് ആ കാര്യത്തിന് എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ ആ